ഈ മതപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ആത്മീയമായ ആശയങ്ങളോ ഉള്ള ഏതെങ്കിലും ഭക്തിഗാനങ്ങളെക്കുറിച്ചാണ് ഭജന ഭജന സൂചിപ്പിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഭജന ട്രൂപ്പുകളുമുണ്ട് ഇത് പ്രത്യേകിച്ച് ധാർമ്മിക മതങ്ങൾക്കിടയിൽ അത് മറ്റേ സംസ്കൃതത്തിൽ നിന്നാണ് ഭജനമെന്ന വാക്കിൽ നിന്നാണിത് ഭജന ഭജന ട്രൂപ്പെന്ന് ഉണ്ടാകുന്നത് ഇതിൽ ഉപയോഗിക്കുന്നത് ഇതൊരു ഉപയോഗിക്കുന്നത് തബല അല്ലെങ്കിൽ ഡോലക്ക് തംബുരു ഉള്ള താള വാദ്യങ്ങളാണ് ഇതിലായിട്ടുപയോഗിക്കാറ് അതുപോലെ തന്നെ ഹാൻഡ് ഹെൽഡായിട്ടുപയോഗിക്കുന്ന ചെറിയ കൈത്താളങ്ങൾ ഇത് ബിറ്റി നടത്താൻ വേണ്ടിയൊക്കെ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് ഇത് കാര്യമായിട്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലോ തുറസ്സായ മരത്തിൻ്റെ ചുവട്ടിലല്ലെങ്കിൽ ഏതെങ്കിലും പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ ആയിരിക്കും ഇത് ഭജന പാടുന്നത് ഇത് ഇന്ന് പല സ്ഥലങ്ങളിലും പല മതത്തിലുമിപ്പോൾ പാരമ്പര്യങ്ങളായി തുടർന്ന് കൊണ്ടേ ഇരിക്കുന്നു ഓ എന്തെങ്കിലും ഇഷ്ടമായെന്തെങ്കിലും ദിവസങ്ങൾ വരുമ്പോളൊക്കെ ഇത് പാടാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പല മത്സരങ്ങളിപ്പോൾ ഉണ്ടാകുന്നുണ്ട് കാര്യമായിട്ട് ഇങ്ങനെത്തന്നെയാണ് ഹിന്ദുമതത്തിലാണെങ്കിലും കാര്യമായിട്ട് ഭജന വേ ടോപ്പ് പാടുന്നതാണ് നല്ലത്